ഹൈക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂപ്രദേശം എന്നുപറയുന്നത് മലകളും മരങ്ങളും ആണ് ഇടതൂർന്ന വനങ്ങളിൽ നല്ല നല്ലൊരു ചെറിയ മഴ പെയ്യുന്നൊരു സാഹചര്യങ്ങളിൽ എന്നാൽ ചെറിയ രീതിയിലുള്ള വെയിലുള്ള എന്നാൽ ഒരു ഒരു ഒരു കനത്ത മഴയ്ക്ക് ശേഷമുള്ളൊരു വെയിൽ ആ ഒരു സമയങ്ങളിൽ ട്രക്കിങ്ങ് അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യാനായിട്ടാണ് എനിക്ക് താല്പര്യമുള്ളത് ഇത്തരത്തിലുള്ള സമയങ്ങളിൽ മലകളിൽ നല്ലൊരു പ്രത്യേക രീതിയിലുള്ളൊരു വന്യമായിട്ടുള്ളൊരു വനത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും